അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺസിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയാസ് ആണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം ഉണ്ടാവും ഫേസ്ബുക്ക് ഉണ്ടാവും വാട്ട്സ്ആപ്പ് ഉണ്ടാവും അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇപ്പം ഇപ്പോഴത്തെ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ യൂത്ത് എല്ലാവരും ഇതിൻ്റെ പുറകെ പോവുമ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോൺസിലും ഇപ്പം മേടിച്ചു വരുന്ന എല്ലാ ഫോൺസിലും ഇതുതന്നെ ആയിരിക്കും വരിക അല്ലേ അപ്പം ആപ്പുകൾ ഏതൊക്കെയാണ് സ്മാർട്ട് ഫോണിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ചില നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ എന്താണ് വെച്ചാൽ കുറച്ചും കൂടി എല്ലാവരേയും അടുത്ത് നമുക്ക് എത്ര ദൂരത്തുള്ളൊരു ഫ്രണ്ട്സിനേയും നമുക്ക് അടുത്ത് വിളിച്ച് നമുക്ക് നമ്മുടെ അടുത്ത് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇന്ന് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിൽ ഇപ്പം ഇൻസ്റ്റഗ്രാം എന്ന് പറയുമ്പം തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഇപ്പം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ് അല്ലേ ഇൻസ്റ്റഗ്രാം ഉണ്ട് യൂത്തിൽ ആൾക്കാർ അതേപോലെ യൂത്തിൽ ആൾക്കാർ എല്ലാം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് ആണ് അങ്ങനെ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഫേസ്ബുക്ക് തന്നെയാണ് ഒരു ഫിഫ്റ്റി പ്ലസ് ഏജിൽ ആൾക്കാരുള്ള എന്നാലും ഇവിടെ എല്ലാവരും നോക്കും കേട്ടോ ഫേസ്ബുക്ക് ആയാലും അതുപോലെ വാട്ട്സ്ആപ്പ് വാട്ട്സ്ആപ്പ് പിന്നെ പറയേണ്ട ഇപ്പം എല്ലാ ചെറിയ കൊച്ചിന്റെ കയ്യിലും വാട്ട്സ്ആപ്പ് ഉണ്ട് അപ്പം അതൊക്കെയാണ് വെച്ചാൽ എന്താണ് വെച്ചാൽ ഇതിൻ്റെ ഗുണദോഷ ദോഷങ്ങൾ എന്താണ് വെച്ചാൽ നല്ല ടൈം നല്ല ടൈം നമ്മുടെ വേറെ എന്തെങ്കിലും സമയം നമ്മൾ നമുക്ക് നമ്മുടെ കാര്യം ഉള്ള വല്ല സംഭവത്തിലും സ്പെൻഡ് ചെയ്യണ്ട ടൈം എല്ലാം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്യും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഇത് ടൈമിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നമ്മൾ മാ നോക്കണം രണ്ടാമത് അത് ഒന്നേ എനിക്ക് തോന്നിയിട്ടുളളൂ വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ടൈമിൻ്റെ ഒരു മെയിൻ ആണ് ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുള്ളത്